മൃഗങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിലെ പശുക്കളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുളമ്പ് രോഗമാണ് പിന്നെ അകിട് വീക്കം അകിട് വീക്കത്തിന് നമ്മൾ കുളമ്പ് രോഗത്തിന് നമ്മൾ മൃഗാശുപത്രി പോയി ഡോക്ടറെ കണ്ടു വാക്സിനേഷൻ ഉണ്ട് പിന്നെ എന്താണ് താറാവ് താറാവിൻ്റെ സീസൺ ആവുമ്പോൾ പക്ഷിപ്പനികൾ വരാറുണ്ട് അപ്പോഴാണെങ്കിലും പഞ്ചായത്ത് നിന്ന് വന്നു അന്വേഷിക്കാറുണ്ട് അന്വേഷിച്ചു അവർക്ക് എന്താണ് വാക്സിനൊക്കെ കൊടുക്കുന്നുണ്ട് കോഴികൾക്കുള്ള രോഗത്തിന് പനിക്കും ഗുളികകളും മരുന്നുകളൊക്കെ ആയിട്ട് പഞ്ചായത്തിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് അങ്ങനെയൊക്കെ പോവുന്നു പിന്നെ കുളമ്പു രോഗമാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാറാവുന്നതാണ് കോഴിക്കും അങ്ങനെയൊക്കെ തന്നെ ഉള്ളത് വേറെ എന്നാ